നല്ല പോലെ ചിത്രം വരക്കാനെനിക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് കാരണം ഇപ്പം ഞാൻ പഠിച്ച കോളേജിൽത്തന്നെ ഒത്തിരി ഇപ്പം എൻ്റെ കൂടെത്തന്നെ ഒരു കുട്ടി നല്ലകണക്ക് വരക്കുമായിരുന്നു അവളുടെ പേര് വിസ്മയ എന്നായിരുന്നു അപ്പം അവൾ എനിക്ക് ഇതുപോലെതന്നെ ഞാൻ പറഞ്ഞിട്ടെനിക്കൊരു പിക്ക് വരച്ചു തന്നായിരുന്നു അപ്പം അവൾ ഇതുപോലെ തന്നെ ഒത്തിരി കോമ്പറ്റീഷൻസിനും കാര്യങ്ങൾക്കും പോയായിരുന്നു ഇപ്പം ഞങ്ങളുടെ ഡിപ്പാട്ട്മെൻ്റിൽ നിന്നു തന്നെ ഞങ്ങളെ മിസ്സുമാരും കാര്യങ്ങളൊക്കെയായിരുന്നു അവളെ കൊണ്ടു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം നല്ല പോലെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞങ്ങളെ കോളേജിൽ അതു മൊത്തത്തിൽ ഇപ്പോൾ സ്കൂളാണെങ്കിൽപ്പോലും നല്ലതാണ് ഇപ്പം ഈ ചിത്ര രചനക്കൊക്കെ നല്ല പോലെ പ്രചോദനം നൽകിയിട്ടുണ്ട്